എൻ്റെ അടുത്ത ഗ്രാമത്തിൽ അങ്ങനെയുള്ള ഭജന ട്രൂപ്പുകളൊന്നും ഇതുവരെയില്ല എനിക്കതിനെക്കുറിച്ച് കൂടുതലറിവുകളൊന്നും ഇല്ലെങ്കിലും ആ ഇവിടെ അമ്പലത്തിലൊക്കെ പാടാൻ വരുന്ന ഭജന ട്രൂപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ കോളേജുകളിലും അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലും ഇങ്ങനെയുള്ള ഒരുപാട് ട്രൂപ്പുകൾ വന്ന് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് അപ്പം അതൊക്കെ കണ്ടൊരു പരിചയത്തിലാണ് ഞാൻ പറയുന്നത് സംഗീത ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കുന്നത് തബല ചെണ്ട അങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളും അതേപോലെ മദ്ദളം കൊട്ടൻ നാരു ഉപകാരണങ്ങളൊക്കെയുണ്ട് അവരുടെ കൈകളിൽ അതേപോലെ ഓടക്കുഴൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പല സിനിമകളിലും അതേപോലെ പാട്ട് യൂ ട്യൂബുകളിലൊക്കെ വീഡിയോയിലൊക്കെ കാണാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയുള്ള ഭജന ട്രൂപ്പുകൾ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള സംഗീത ഉപകരണങ്ങളും അതേപോലെ അവരൊത്തു കൂടുന്നതെനിക്ക് തോന്നുന്നു അവരെനിക്ക് കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി അറിയില്ലാ എങ്കിലും അവരൊത്തു കൂടുന്നത് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള വേളകളിലവർ ഒത്തുകൂടുകയും അതേപോലെ ഇങ്ങനെ ഞാനൊരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അമ്പലങ്ങളിലുള്ള പരിപാടികൾക്കാണീ ഭജന ട്രൂപ്പുകളും അതേപോലെ അങ്ങനെയുള്ള പരിപാടികൾക്കാണ് ഭജന ട്രൂപ്പുകൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് അതും ഞാൻ ഒരു അമ്പലത്തിൽ പോയി അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ അങ്ങനൊരു പരിപാടി ഞാൻ സിനിമകളിലും അതേപോലെ വിഡിയോകളിലും മാത്രമേ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളു